പിന്നെ ഈ പിന്നെ ഈ ഇതിൻ്റെ പിന്നെ ഈ മത്സ്യത്തിൻ്റെ ഒക്കെ കാര്യം അറിയാൻ ആയിരുന്നു ഫുഡ്ഡിൻ്റെ ഒക്കെ ആ ബാംഗ്ളൂരിൽ നിന്ന് ആ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് എല്ലാം അവൈലബിൾ ആണ്

ആ ഫിഷ് തന്നെ

അതായത് തൗസൻ്റെന്ന് പറയുമ്പം എങ്ങനെ

ലൈവ് ആയിട്ട് നമ്മളെ കാണിച്ചു തരുമോ ഉണ്ടാക്കുമ്പോൾ അതെ അല്ലെ അത് അങ്ങ് അത് അതിനാണോ തൗസൻ്റ് വരുന്നത്

അതെ അല്ലെ അത് ഈ ലൈവ് ആയിട്ട് ചെയ്യുന്നതിന് ആണോ തൗസൻ്റ് പറഞ്ഞത്

പിന്നെ നമ്മളൊരു ഒര് ഫാമിലി ഒരു അഞ്ച് ആള് നമ്മൾ അഞ്ച് ആള് വേറെ എന്താ അവൈലബിൾ ആയിട്ട് ഉള്ളത്

അതായത് നമ്മൾ ഒരു മണിക്കൂർ മുന്നെ അവിടെ വന്നു പറയണം എന്താ വേണ്ടതെന്ന് അല്ലെ അത് നമ്മൾ ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് എത്തിയെങ്കിൽ വിളിച്ചു പറഞ്ഞാലും മതിയാവുമോ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലെ

അതെ അല്ലെ ആ അപ്പോൾ എന്ത് അപ്പം ആ സമയത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ട് ഉള്ളതെന്നു വച്ചാൽ അപ്പം നിങ്ങൾ പറഞ്ഞു തരില്ലെ ആ ഓക്കെ അപ്പം നമ്മൾ ഒരു മണിക്കൂർ മുന്നെ പറഞ്ഞാൽ മതി ഇല്ലെ ആയിക്കോട്ടെ അപ്പം വരുന്ന അന്ന് വിളിച്ചാൽ മതി ശരിക്കും അല്ലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ താങ്ക് യു